ഓ ഇപ്പോൾ അങ്ങനെ കേരളത്തിലെ സാക്ഷരത നിരക്ക് കറക്റ്റ് എനിക്കറിയത്തില്ല ഓൾമോസ്റ്റ് ഇപ്പോൾ കേരളത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ എല്ലാവർക്കും തന്നെ നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻ്റ് അത്യാവശ്യം നല്ലൊരു പദ്ധതി തന്നെയാണ് കൊണ്ടു വന്നിരിക്കുന്നത് അപ്പോ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ പഠിക്കാനുള്ള ഒര് അവസരം ഇപ്പോൾ കേരളത്തിലെ സർക്കാര് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ സ്കൂളില് വന്നു പഠിക്കാവുന്നതാണ് ഒരു ഇത് അതിനു വേണ്ടി തന്നെ ഇപ്പോൾ എന്താ പറയുക ഉച്ച കഞ്ഞി പിന്നെ പൈസയും ഗ്രാൻഡ് കാര്യങ്ങള് അങ്ങനെയുള്ളതൊക്കെ സർക്കാര് കുട്ടികൾക്ക് വേണ്ടി അനുവദിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അനുവദിച്ചു കൊടുക്കുമ്പോൾ കുറെ കുട്ടികളൊക്കെ സ്കൂളില് വരികയും അവർക്ക് വേണ്ട പഠിക്കാൻ ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ വന്നു പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് എന്നാൽ എന്താ പറയുക ഗവൺമെൻ്റ് സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് കുട്ടികളൊക്കെ നല്ല രീതിക്ക് തന്നെ പഠിക്കുന്നുണ്ട് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളം കേരളത്തിന് ഉള്ള കൂടുതലും കുട്ടികള് നല്ല രീതിക്ക് തന്നെ പഠിച്ച് വരുന്നുണ്ട് അപ്പോൾ മറ്റ് സംസ്ഥാനത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സാക്ഷരത തന്നെയാണ് എന്താ പറയുക കുട്ടികളിലെ കണ്ടു വരുന്നത് അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെ ആയിട്ടാണ് എനിക്കും തോന്നുന്നത്